നമ്മുടെ രാജ്യം ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിലൊക്കെ മുൻപോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതേ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ ടൗൺ ഏരിയയിൽ ഒക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും അതേപോലെ ആയുർവേദമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ലഭിക്കാറുണ്ട് നമുക്ക് പുറത്തൊന്നും പോകേണ്ടതായിട്ട് വരുന്നില്ല അതെ വേണ്ട മരുന്നുകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കാറുണ്ട് ഇവിടെ നിന്ന് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് ഇന്ത്യ വിട്ട് പുറത്ത് പോകേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല എല്ലാം ഹോസ്പിറ്റലും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് അതേപോലെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കുറച്ച് നമുക്ക് ചിലവ് വരുന്നത് അല്ലാത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്നും ചിലവ് വരാറില്ല എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നമുക്ക് അധികവും പ്രൈവറ്റ് ഹോസ്പിറ്റലും ആശ്രയിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ടുത്തന്നെ നമുക്ക് ചിലവൊന്നും അധികം വരുന്നില്ല ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ചിലവൊക്കെ നമുക്ക് താങ്ങാവുന്നതാണ് മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത ചിലവെന്ന് പറയാൻ ഉള്ളത് പിന്നെ അതേപോലെ കോവിഡ് മഹാമാരി വന്നപ്പോഴും നമ്മൾ ഒട്ടും പുറകോട്ടല്ല നിന്നത് മറ്റു രാജ്യങ്ങളൊക്കെ ഉറ്റു നോക്കിയ ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഭാരതം പിന്നെ വാക്സിനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാറന്റൈൻൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു ഓക്സിജൻ്റെ കാര്യത്തിലാണെങ്കിലും ഹൊ ഹോസ്പിറ്റലുകളിൽ എല്ലാം ഓക്സിജൻ സൗകര്യം ഉണ്ടായിരുന്നു അതേപോലെ ബെഡ് സൗകര്യം ഉണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ക്വാറന്റൈൻനിൽ ഇരിക്കാൻ പറ്റുക എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നു നമുക്ക് വാക്സിനേഷൻ ആണെങ്കിലും കൃത്യ സമയത്തും കറക്റ്റ് സമയത്തും വാക്സിനേഷനും മരുന്നും അതേപോലെ മെഡിസിൻസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല അതേപോലെ നമ്മുടെ നാട്ടിൻ പ്രദേശത്താണെങ്കിൽ ഹോസ്പിറ്റലിന് മെച്ചപ്പെടുത്താൻ ഇനിയും സാധിക്ക് സാധിക്കും അതേപോലെ ഡോക്ടറിൻ്റെ സൗകര്യം ആണെങ്കിലും നമ്മളുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പം നടന്ന് കൊണ്ടിരിക്കുന്നത് ഇനിയും നടത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ശുചിത്വം അതൊക്കെ ഒന്നും കൂടെ നടപ്പിലാക്കി വന്നാൽ നമുക്ക് രോഗങ്ങളിൽ നിന്നും ഒരുപാട് മുക്തി നേടാൻ പറ്റും അതേപോലെ ഹോസ്പിറ്റലിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഹോസ്പിറ്റലിൽ ഒക്കെ സൗകര്യങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിച്ചാൽ നമുക്ക് ടൗൺ ഏരിയയിലേക്കും കൂടി പോവാ ണ്ടി വരില്ല അത്രയും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസുള്ള ഒരു രാജ്യമായി നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറി കഴിഞ്ഞിരിക്കുകയാണ്